ഇരുപത്തി രണ്ട് ഒന്ന് രണ്ടായിരത്തി രണ്ട് പതിനാറ് അഞ്ച് രണ്ടായിരത്തി മൂന്ന് പതിനേഴ് നാല് രണ്ടായിരത്തി നാല് പതിനെട്ട് മൂന്ന് രണ്ടായിരത്തി പത്ത് പതിനാറ് അഞ്ച് രണ്ടായിരത്തി ആറ്